ഞാൻ ചെറുപ്പത്തിൽ തന്നെ വെള്ളം എനിക്കിപ്പം സ്വിമ്മിങ്ങ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ചെറുപ്പം തന്നെ ഞാൻ വെള്ളത്തിലിങ്ങനെ ഇറങ്ങി പതയ്ക്കുകയും മുങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാലും നമ്മളൊരു സ്കൂൾ തലത്തിൽ ഒരു ഇത് വരുമ്പം കോമ്പറ്റീഷൻ വരുമ്പം നമുക്ക് എന്തായാലും നമുക്കൊരു പേടി വരും എങ്ങനെയാവും എല്ലാവരുടെ കൂടി പതയ്ക്കുന്നു മുങ്ങുന്നു അങ്ങനെയൊക്കെ വരുമ്പം നമുക്കെന്തായാലും ഒരു ടെൻഷൻ വരും ആ ടെൻഷനിൽ ടീച്ചർമ്മാരും സാറമ്മാരും പറയും വേണ്ട പേടിക്കുകയൊന്നും വേണ്ട ധൈര്യം പിടിക്ക് ഇത്ര പ്രാവശ്യം ബ്രീത്ത് ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഇച്ചിരി കോൺഫിഡെൻസാവും അങ്ങനെ നമ്മൾ ഇറങ്ങി അങ്ങനെ പതച്ച് മുന്നേറിയിട്ടുണ്ട് അത് ഇപ്പോഴായാലും നമുക്ക് അത് തന്നെ ആണിഷ്ടം നമുക്ക് അങ്ങനെയൊരു അല്ലാത്തപ്പോൾ നമുക്ക് അങ്ങനെ ഭയമൊന്നുമില്ല വെള്ളത്തിലിറങ്ങാനൊ കുളിച്ച് മുങ്ങി വരാനൊന്നും നമുക്ക് അതിലല്ലത്തന്നാണെങ്കിലും നമ്മൾ അത് പതയ്ക്കാനും ആണ് നമുക്ക് ഇഷ്ടമാണ് അങ്ങനെ വലിയ ഇഷ്ടക്കേടില്ല ഒത്തിരി ഇഷ്ടമുള്ളൊരു ഇതാണ് സ്വിമ്മിങ്ങ് അതു നമ്മൾ ചെറുപ്രായത്തിൽ തന്നെ സ്കൂളുകളിൽ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് നമുക്ക് അതിൽ പ്രൈസും കിട്ടിയിട്ടുണ്ട് ഇപ്പോഴാണെങ്കിലും നമുക്ക് അത് വന്നാലും നമുക്ക് അത് നേരിടാൻ ഒരു ഇതും ഇല്ല മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ധൈര്യമുണ്ട് നമ്മൾ ഇപ്പോഴാണെങ്കിലും അത് തന്നെ ചെയ്യാൻ നമുക്ക് ഭയങ്കര കോൺഫിഡൻസാണ് അത് അത് നമ്മൾ ഓഹ് അത് നമുക്ക് ഒട്ടും പുറകോട്ട് പോവാൻ നമുക്കിതില്ല പക്ഷേ ഇഷ്ടമാണ് നല്ല ഒരു ഇതാണ് എനിക്ക് ഇഷ്ടം ആണ്